ഇപ്പോൾ നമ്മൾ കരയിൽ നിന്നും അകലെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ നീന്തുമ്പോഴെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ നേരിടാനുള്ള പ്രശ്നങ്ങളൊക്കെ കൂടുതലാണ് കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ കൂടുതലായിട്ടും ഈ എങ്ങനെ ആണെന്ന് വെച്ച് കഴിഞാൽ നമ്മൾ ഈ എന്താ പറയുക ഇപ്പോൾ ഒഴുക്കുള്ള ഒരു ടൈമൊക്കെ ആണെങ്കിൽ നമ്മൾ നി നീന്താണ്ട് സൂക്ഷിക്കുന്നതായിരിക്കും കുറച്ച് കൂടെ ബെറ്ററ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അടിയൊഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ചിലപ്പോൾ പിടിച്ച് നിൽക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മളുടെ നീന്തലിന് ചിലപ്പോൾ ശക്തിയും കാര്യങ്ങളൊന്നും പോരാണ്ടായി വരും ഇപ്പോൾ പല രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഇപ്പോൾ ഉണ്ടാവും അപ്പോൾ നമ്മൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നേരിടും നമ്മൾക്ക് ശ്വാസം മുട്ടാനൊക്കെ തുടങ്ങും നമ്മളുടെ കൈ കാലുകളൊക്കെ വിറക്കും അപ്പോൾ നമ്മൾ തളർന്ന് പോവുന്ന പോലെയാവും അപ്പോൾ അത് നമ്മൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടീട്ട് നമ്മൾ കൂടുതലായിട്ടും ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒഴുക്കുള്ളൊരു ടൈമും മഴ ഉള്ളൊരു ടൈം എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾ ഒഴിവാക്കി വിടുക അങ്ങനത്തെ സമയങ്ങളിലൊന്നും നമ്മൾ എന്താ പറയുക വെള്ളത്തിലൊന്നും പോയിട്ട് നീന്താണ്ടിരിക്കുക പിന്നെ വഴുവഴുപ്പുള്ള പാറകളിലൊക്കെ ഒന്നും പോയി പിടിക്കാണ്ടിരിക്കുക ശക്തമായ ഒഴുക്കുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ കൂടുതലായും ചെയ്യേണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കയറൊക്കെ കെട്ടീട്ട് വേണം കൂടുതലായിട്ടും നീന്താൻ അപ്പോൾ പെട്ടെന്ന് നമ്മൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ പറ്റി കഴിഞ്ഞാൽ നമ്മൾക്ക് പെട്ടെന്ന് പുറമേന്ന് ഒരാളുടെ സഹായം ഉണ്ടെങ്കിൽ നമ്മൾക്ക് പെട്ടെന്ന് വലിച്ച് എടുക്കാൻ പറ്റും നമ്മൾ എപ്പോഴും ആളുണ്ടാവണം നമ്മുടെ കൂടെ എന്ന് വേണമെങ്കിൽ പറയാം